അ മേഡം എനിക്കീ എൽ ഐ സി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇത് ഞാന് വെറുതേ ഇൻവെസ്റ്റ് നമ്മളെത്ര രൂപ അടയ്ക്കുന്നു അത് മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ഞാനിനി അടയ്ക്കുന്നില്ല റിന്യൂ ചെയ്യുന്നില്ലെന്നുതന്നെ വിചാരിച്ച് പർപസ്ഫുളി അടയ്ക്കാതിട്ടേക്കുവാ കേട്ടോ ഞാനടയ്ക്കുന്നില്ല ഇനി അത് ഈ യൂസ്ഫുള്ളായിട്ടെന്നു വരുന്നത് അതു പുതിയ പുതിയ സ്കീമിനല്ലേ ഇപ്പോള് പഴയ നമ്മളെടുത്തുകഴിഞ്ഞ് എൽ ഐ സി പോളിസികൾക്കൊന്നും യാതൊരു ബെനിഫിറ്റും കാര്യങ്ങളും നമുക്ക് കസ്റ്റമേസിനൊന്നുമില്ല അത് വെറുതെയാണ് നമ്മളിപ്പോള് ഒരു ഒരു ലക്ഷം രൂപയുടെ പോളിസി അടച്ചുകഴിഞ്ഞാല് ഒരു ലക്ഷം രൂപ കൃത്യമായി അയ്യായിരമോ ആറായിരമോ രൂപ മാത്രമേ പലിശ കയ്യിലോട്ട് കിട്ടൂ അത് നമ്മള് വേറേതേലും കോർപ്പറേഷൻ ബേങ്കിലോ എവിടേലും കൊണ്ടുപോയി നമ്മള് ഒരു ആർ ഡി ഇട്ടാല് നമ്മള്ക്കതിനൊക്കെ എന്തോരം പലിശ കിട്ടും അപ്പോള് എനിക്കിത് വളരെയൊരു ബെനിഫിറ്റുള്ളതായിട്ട് തോന്നില്ല അതുകൊണ്ടാണ് ഞാനിത് അടയ്ക്കുന്നില്ല എന്നുതന്നെ തീരുമാനിച്ചിരിക്കുന്നത് വേണ്ടെന്നതന്നെയാണ് എൻ്റെ തീരുമാനം മേഡം മേഡത്തിനൊന്നും തോന്നരുത് ഞാനങ്ങ് തുറന്നുപറയാ ഈ എൽ ഐ സി ലൈഫ് ഇൻഷൂറൻസ് എന്നാ ഒരു വ ഒരു പ്രധാന്യവുമില്ലാത്ത പേരാണ് അതിലിട്ടേക്കുന്നത് വെറുതെയാണ് ലൈഫ് ഇൻഷൂറൻസെന്നുള്ള പേര് വെറുതെയാണ് നമുക്കതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല പിന്നെ എന്താണു പറയേണ്ടത് ഇത് ലോണെടുക്കാൻ പോയാല് അതിന് കുറേ നൂലാമാലകള് അതിനകത്ത് പിന്നെ അത് പിന്നെ ഇൻ്റെൽ പലിശ വളരേ കുറവാണ് പിന്നെ മണീബേക്കെക്കെ ആയാലും പറ്റത്തില്ല കേട്ടോ വെറുതെയാണെനിക്ക് ഒരു ഒരു താൽപര്യവുമില്ല അതുകൊണ്ട് ഞാന് ആ എൽ ഐ സി രണ്ടും പെൻ്റിങ്ങാക്കി ഇട്ടേക്കുവാ കേട്ടോ വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളിപ്പോള് നമ്മളങ്ങനെ തീരുമാനിച്ചിട്ട് വേണ്ട അതിനെക്കാലും നല്ലെ ആ പൈസ കൊണ്ട് നമ്മള് വേറെവിടെലും ഫിക്സെഡിട്ടാല് നമുക്കതിൻ്റെ പലിശയും കൂടേ കിട്ടും

അത് കുഴപ്പമില്ല മേം ന ഞാന് എനിക്കിതിൻ്റെ കാലാവധി കഴിയുമ്പോള് ഞാനതങ് അടച്ച പൈസ അത്രയും എനിക്ക് കിട്ടിയാല് മതീ അല്ലാതെനിക്ക് പാടാണ് കേട്ടോ